ഇവിടെ ഒരു പൊതു ലൈബ്രറിയുണ്ട് എല്ലാവർക്കും വേണ്ടിയാണ് അതൊരു പള്ളിയുടെ വകയായിട്ട് ഒരു ലൈബ്രറി വച്ചേക്കുന്നത് അപ്പം നമുക്ക് എന്റർടൈൻമെന്റ് ഫെസിലിറ്റിക്ക് വേണ്ടിയാണേ ടി വിയുണ്ട് രാത്രി ചേട്ടന്മാരൊക്കെ വന്നിരുന്ന് കളി കാണാനും ഓരോ പ്രോഗ്രാമ് കാണാനും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും ആ ലൈബ്രറി ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ ന് ഒരു ആർട്സ് പരിപാടി അങ്ങനെ കാര്യങ്ങളൊക്കെ വയ്ക്കാറു ഉണ്ട് ലൈബ്രറി എല്ലാവരും പുസ്തകങ്ങൾ വന്ന് വായിക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ട് ഒരു ലൈബ്രറി ഉണ്ട് നമ്മൾ പുസ്തകങ്ങൾ വായിക്കാറും ഓരോ കാര്യങ്ങൾ അറിയാനും ഉപയോഗിക്കാനും ഒരൊരോ അറിവ് നേടാനും അതിലെ പുസ്തകങ്ങളെല്ലാം നമ്മളെ വളരെ സഹായിക്കാറുണ്ട് അവിടുന്ന് ഓരോ പുസ്തകം മേടിച്ചിട്ട് നമുക്ക് കൂട്ടുകാർക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അവിടെ എത്തിച്ചില്ലേലും വേറെ ആർക്കെലും കൊടുത്തിട്ട് അങ്ങനാണേലും അവിടെ എത്തിച്ചാലും മതി അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല നമുക്കിഷ്ടമുള്ള പുസ്തകങ്ങളെടുത്തു കൊണ്ടു വരാം അത് ഫുള്ളും തീർത്തും അതിനെ മനസ്സിലാക്കിയിട്ട് ശേഷം മാത്രം കൊടുത്താലും മതി അവിടുത്തെ ജീവനക്കരെല്ലാം അതുപോലെ നമ്മളെ വളരെ സപ്പോർട്ടാണ് പുസ്തകങ്ങളെടുത്തോണ്ട് പോകാനാണേലും കൊണ്ടു വരാനാണേലും നമ്മൾ പറയാണ് കൊണ്ട് തരും കാര്യങ്ങളെല്ലാം ചെയ്യും ഇപ്പം നടക്കാൻ പറ്റാത്തോരൊക്കെയാണെങ്കിൽ അവരുടെ വീട്ടിൽ കൊണ്ട് പുസ്തകങ്ങൾ കൊടുക്കുകയും അങ്ങനെ വായനയിലൂടെ ഓരോരുത്തരെയും വളർത്താനുള്ള കഴിവ് അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ പുസ്തകങ്ങൾ വരുന്നതെല്ലാം മേടിച്ച് വെക്കാനാണേലും നമ്മളിപ്പം എതേലും പുസ്തകങ്ങളെ കുറിച്ച് പറയു ആണേലും അത് മേടിച്ച് വെക്കാനാണേലും അവർക്കെല്ലാം വളരെ ഇൻട്രസ്റ്റിങ്ങാണ് നമുക്ക് പിന്നെ ഓരോ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പളും ഓരോന്നിനെ കുറിച്ച് സംസാരിക്കുമ്പളും അവരതെല്ലാം ചെയ്യാറുണ്ട്